ഞങ്ങളെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് പരമ്പരാഗതമായ സദ്യ അതിൽ സാമ്പാർ അവിയൽ പച്ചടി ഓലൻ തോരൻ പൈനാപ്പിൾ പച്ചടി അങ്ങനെ പല തരതിലുള്ള വിഭവങ്ങൾ പപ്പടം ഉപ്പേരി ഇതെല്ലാം അടങ്ങിയിട്ടുള്ള പരമ്പരാഗതമായിട്ട് സാമ്പാർ ചോറിനൊപ്പം സാമ്പാർ സാമ്പാറിൽ എല്ലാവിധ പച്ചക്കറികളും അടങ്ങിയിട്ട് സാമ്പാർ ഉണ്ടാക്കിയത് അത് പോലെ തന്നെ അവിയൽ അവിയൽ എല്ലാ പച്ചക്കറി വിഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഈ സദ്യ കൊണ്ട് ഒന്ന് കൂടി ഉദ്ദേശിക്കുന്നുണ്ട് ആരോഗ്യപരമായ ഒരു ഹെൽത്ത് നമ്മളെ ശരീരത്തിന് വേണ്ട എല്ലാവിധ കാൽസ്യം പ്രോട്ടീൻ എല്ലാവിധവും അടങ്ങിയിട്ടുള്ള നല്ല പരമ്പരാഗതമായി നില നിന്നു കൊണ്ടിരിക്കുന്ന ഒരു ഒന്നാന്തരം സദ്യ അത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിൽ പൈനാപ്പിൾ പച്ചടി ഉപ്പേരികൾ പല തരത്തിലുള്ള രണ്ട് മൂന്ന് തരത്തിലുള്ള ഉപ്പേരികളുണ്ടാവും പപ്പടം അച്ചാർ പുളിയിഞ്ചി ഇഞ്ചിത്തൈര് സലാഡ് അത് പോലെ തന്നെ കായ വറുത്തത് ശർക്കര ഉപ്പേരി ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സദ്യ ആയിരിക്കും പത്ത് തരം കറികളടങ്ങിയിട്ടുള്ള നാല് തരം പായസം അതിൽ ഏറ്റവും പ്രധാനമാണ് പരിപ്പ് പായസം പരിപ്പ് പായസം പഴം പപ്പടം എന്നിവ കുട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാാ വിധ വിഭവങ്ങളുമടങ്ങിയിട്ട് നല്ല ഒന്നാന്തരം ഒരു സദ്യ പരമ്പരാഗതമായി ഞങ്ങളെ നാടിൻ്റെ ഒരു ആചാരം ആണ്